ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡ്രില്ല് ഡ്രിൽ ബിറ്റിൻ്റെ സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടില് കുറച്ച് അത്യാവശ്യം പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ മു മുകളിലേക്ക് റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതില് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാൻ വേണ്ടീട്ട് അടിയിൽനിന്ന് അതായത് താഴത്തെ മുറിയിൽ നിന്ന് വലിയ്ക്കാൻ വേണ്ടീട്ടുള്ള ഒരു ഇതിന് വേണ്ടി മേടിച്ചതാണ് വെല നമുക്ക് താരതമ്യേനെ അതായത് നല്ല കമ്പനി ഒരു ആവറേജ് കമ്പനിയുടെ ഡ്രിൽ ബിറ്റ് തന്നെയായിരുന്നു അതായത് ഇപ്പോൾ വലിയ വിലയൊന്നും ഇല്ലാണ്ട് നമുക്ക് അധികം യൂസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു ആവറേജ് കമ്പനിയുടെ ഡ്രിൽ ബിറ്റും കാര്യങ്ങളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വിലക്കുറവില് കിട്ടി കഴിഞ്ഞു കിട്ടിട്ടുണ്ടായിരുന്നു ഡ്രിൽ ബിറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നമുക്ക് കോൺക്രീറ്റ് ഒക്കെ നന്നായിട്ട് പെട്ടന്ന് തന്നെ എന്താ പറയുക ഡ്രിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ മെഷീൻ ചൂടാകുന്നതും ഇല്ല കൈ അധികം സ്ട്രെസും കാര്യങ്ങളൊന്നും വരുന്നില്ല അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്